ഹലോ നമസ്കാരം മാഷെ എൻ്റെ പേര് സന്ദീപ് ഞാനൊരു പുതിയതായിട്ട് ടു വീലറും ഫോർ വീലറിന്റെയും ലൈസൻസ് എടുക്കുന്നതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു മാഷേ എനിക്ക് പതിനെട്ട് വയസ്സ്

ആ ഓക്കെ ഇത് നമ്മുടെ സ്കൂളിൻ്റെ ലൊക്കേഷനൊന്ന് പറയാമോ ആ അറിയാം ആ ഹാ ഞാൻ പ്ലസ് ടൂ കഴിഞ്ഞു പ്ലസ് ടൂ കഴിഞ്ഞ് ഡിഗ്രിക്ക് കയറാൻ നില്ക്കുകയാണ് ആണല്ലേ

ആണല്ലേ

ഓ അങ്ങനെയാണല്ലേ ഹാ ഹാ ആ ഹാ സാറെ ഇതെടുക്കാനുള്ള ഫീസ് എങ്ങനെയായിരുന്നു ആ അല്ല പരിശീലനം ആവശ്യമുണ്ട് കാറെനിക്ക് ഓടിക്കാൻ അറിയില്ല ആണല്ലേ ഹാ ഹാ

ആണല്ലേ ആ അ ആ ആ ഈ നമ്മുടെ ഈ ആ നമ്മുടെ എട്ടെടുക്കുന്നതോ

ആണല്ലേ ഈ മൊത്തം ആ പറഞ്ഞുകൊള്ളൂ പറഞ്ഞുകൊള്ളൂ പറഞ്ഞുകൊള്ളൂ ആ എന്താണ് അ ശരിയെന്നാല് ഞാൻ നാളെ രാവിലെ വന്നേക്കാം